നൗ ബീയിംഗ് റെകോഡഡ് ഹലോ ഹലോ ആ ആ ടീച്ചർ തന്നെ ആരാണ് അനു ഏത് അനു അനു പി ആണോ അനു എ ആണോ ആ അനു എയുടെ അമ്മ ആ പറയൂ എന്താ ആ ആ പിന്നെ ക്ലാസ്സിൽ ഒക്കെ നല്ല കുട്ടി ആണ് വായിപ്പിക്കാൻ പറഞ്ഞാൽ വായിപ്പിക്കും എഴുതാൻ പറഞ്ഞാ എഴുതും ക്ലാസ്സിൽ നല്ല കുട്ടി ആണ് ആവറേജ് സ്റ്റുഡൻറ്റ് ആണ് പക്ഷെ എക്സാമിന് മാർക്ക് കുറവ് കാരണം അവൾ കുറച്ച് ദിവസമായിട്ട് ലീവ് ആയിരുന്നു നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഒരു കല്ല്യാണത്തിൻ്റെ ഭാഗം ആയിട്ട് നിങ്ങൾ ഉണ്ടായില്ല പറഞ്ഞു അപ്പോൾ അത്ര ക്ലാസ് മിസ്സ് ആയത് കൊണ്ട് ആണ് അവൾക്ക് ഈ എക്സാമിന് മാർക്ക് കുറയാൻ കാരണം കാരണം എക്സാമിൻ്റെ ആ ഒരാഴ്ചക്ക് മുമ്പ് ആണ് അവൾ പോയത് അപ്പോൾ അപ്പോൾ നിങ്ങൾ വീട്ടിൽ നോക്കണമായിരുന്നു അപ്പോൾ ഡെയിലി വായിട്ട് ആ ആ പക്ഷെ കുട്ടികളെ ഒരു കുറച്ച് ദിവസത്തിന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതി ആയിരുന്നു ഒരാഴ്ച മുമ്പേ പോവുക പോവണമെന്ന് ഉണ്ടായിരുന്നില്ല ആ അത് പറ്റിയില്ല അപ്പോൾ കുറച്ച് ശ്രദ്ധിക്കണമായിരുന്നു എക്സാം ആണ് മെയിൻ എക്സാം ആണ് പിന്നെ അവരെ സെമസ്റ്റർ എക്സാം ആണ് അപ്പോൾ കുറച്ച് ശ്രദ്ധിക്കണമായിരുന്നു അതുകൊണ്ട് അല്ലാണ്ട് അവള് നല്ല കുട്ടി ആണ് നന്നായി പഠിക്കും ക്ലാസ്സിൽ ഒരു മിടുക്കി കുട്ടി ആണ് എല്ലാ ആർട്ട് ആർട്ടും ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യും ആ അപ്പോൾ അവൾ ഈ ഒരു എക്സാമിന് മാത്രം അല്ലേ അവൾക്ക് മാർക്ക് കുറവ് ഉള്ളൂ എന്ന് ആണ് എൻ്റെ ഒരു അഭിപ്രായം ആ ബാക്കി എക്സാമിന് ക്രിസ്മസ് എക്സാമിന് ഒക്കെ നല്ല മാർക്ക് ഉണ്ട് ആ പിന്നെ ഹേ ഹേ അങ്ങനെ ഒന്നും അങ്ങനെ ഇല്ല നല്ല കുട്ടി ആണ് ക്ലാസ്സിൽ നല്ല കുട്ടി ആണ് കുഴപ്പമൊന്നും ഇല്ല എന്ത് ഹോം വർക്ക് ചെയ്യാൻ പറഞ്ഞാലും അത് കൊണ്ടുവരും ആ ആ അത് കുഴപ്പമില്ല അത് നിങ്ങൾ ആ കല്ല്യാണത്തിനും ആ കുറച്ച് ദിവസം ലീവ് ആയതിൻ്റെ ലീവ് ആയതിൻ്റെ അല്ലേ ആ അത് ഒന്നും കുഴപ്പമില്ല ഓക്കെ